ഇന്ത്യയിലെ ആരോഗ്യസംരക്ഷണ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല രീതിയിലുള്ളൊരു ആരോഗ്യസംരക്ഷണമാണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പിന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇള്ളോണ്ട് ഇപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പം ഏത് ജാതി മത ഭേദമന്യേ നമുക്കവിടെ പോയിട്ട് ചികിത്സ തേടാവുന്നതാണ് അപ്പം അവിടെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇപ്പം ഗവർമെൻറ്റിൻ്റെ ആയത് കൊണ്ട് നമുക്ക് മരുന്നിന് ക്യാഷ് ഒന്നും കൊടുക്കണ്ട ആവിശ്യം ഇല്ല അപ്പം നല്ല രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ അവർ നടത്തി കൊണ്ട് വരുന്നത് പിന്നെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് ആ മാനന്തവാടി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വേണം പോകാൻ വേണ്ടീട്ട് പക്ഷേ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ആവിശ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ കോഴിക്കോടേക്ക് ആണ് വിടാറ് ഇപ്പം അങ്ങനെ ഒന്നുമില്ല ഇപ്പം നല്ല രീതിയിൽ ഉള്ള ഒരു ചികിത്സയും കാര്യങ്ങളും ഒക്കെ മാനന്തവാടി ആശുപത്രിയിലും ഉണ്ട് പിന്നെ എങ്ങനേന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ക്യാൻസറിന് ആണെങ്കിലും ഓരോ ഇതിനാണെങ്കിലും നല്ല രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്